പതിനാറ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഇരുപത്താറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അഞ്ച് നാല് രണ്ടായിരത്തി മൂന്ന് ഏഴ് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഞ്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച്